എനിക്ക് ഒരുപാട് സിനിമകൾ ഇഷ്ടമാണ് പെട്ടന്ന് ആലോചിച്ചാൽ ആലോചിച്ചപ്പം പെട്ടന്ന് വന്നൊരു സിനിമയാണ് രോമാഞ്ചം ശരിക്കും ഭയങ്കര എന്താ പറയുക എനി എന്നെ ഭയകരമായിട്ട് എൻ്റെ എന്നെ ശരിക്കും രോമാഞ്ചമാക്കിപ്പിച്ച ഒരു സിനിമയാണ് കാരണം അതിന് ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പോയ ഒരു സിനിമ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പോയി കണ്ട ഒരു സിനിമയാണ് അപ്പം അതിന്റേതായ അതിനുള്ള എക്സൈറ്റ്മെൻറ്റും ത്രില്ലും എല്ലാം തന്നെ ഉണ്ടായിരുന്നു ഒരു ഭയങ്കര ഒരു എന്താ പറയുക നമുക്ക് തമാശയ്ക്ക് തമാശ നമ്മൾക്ക് ഒരു പേടിപ്പിക്കുന്ന രീതിയിൽ ആണെങ്കിൽ അങ്ങനെ അങ്ങനെ ചിരിപ്പിക്കുന്ന രീതിയിൽ ആയിക്കോട്ടെ എല്ലാ രീതിയിലും ഒരു കമ്പ്ലീറ്റ് ആയിട്ടുള്ള ഒരു കുടുംബ സമ്മേതം എല്ലാർക്കും കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് നമുക്ക് എന്താ പറയുക നമുക്ക് ആ സിനിമയുടെ ട്രൈലർ കാണുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കില്ല ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഉണ്ടോ എന്ന് ഒരുപാട് നമ്മളെ എന്താ പറയുക ചില സമയങ്ങളിൽ നമ്മളെ പേടിപ്പെടുത്തും അല്ലെങ്കിൽ നമ്മുടെ ആരോ സിനിമയുടെ മുൾമുനയിൽ നിൽക്കുക എന്ന് പറയില്ലേ ആ ഒരു സമയത്ത് തോന്നും പിന്നീട് തിയേറ്ററിൽ പോയി കണ്ടതു കൊണ്ടാവാം അതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള ഒരു നല്ല ഒരു അനുഭവം ആയിരുന്നു കാരണം ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയണത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അത് നമ്മൾ അറിയുക തന്നെ വേണം അപ്പോൾ അതിൻ്റെതായ ഇതില് കണ്ടപ്പോൾ സിനിമ ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു എന്താ പറയുക ഇനിയും അതിൻ്റെ പാർട്ട് ടു ഇറങ്ങും എന്നാണ് പറയണത് ഞാൻ ഒരു തീർച്ചയായും പാർട്ട് ടു ഇറങ്ങിയാൽ തീർച്ചയായും ഞാൻ തിയേറ്ററിൽ പോയി കാണും ഫ്രണ്ട്സിനെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് കാണാനാ കാണാനാണ് ഉദ്ദേശിക്കണത് എന്താ പറയുക നമ്മളുടെ ലൈഫിൽ ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് കൂടുതലും എന്താ പറയുക നമുക്ക് എല്ലാവരെയും എല്ലാ പ്രായക്കാരെയും ഒരേ പോലെ എൻജോയ് ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമയാണ് അപ്പോൾ തീർച്ചയായും എല്ലാവരും കാണണം എന്ന് തന്നെ ഞാൻ പറയാൻ ഉള്ളത് ഒരുപാട് അത് ഹിറ്റായ ഒരു സിനിമയാണ്